അതായത് എൻ്റെ സംസ്കാരം എന്ന് പറയുമ്പോൾ നമ്മൾ ഇപ്പൊൾ കണ്ടുവന്നിട്ടുള്ള കലകള് എന്നൊക്കെ പറയാനാണെങ്കിൽ നമ്മുടെ എന്താ പറയുക നമ്മള് ഒരുമാതിരി ഒരു അത്യാവശ്യം എന്താ പറയുക ഇങ്ങനെ അധികം കലാപരമായിട്ടുള്ള കാര്യങ്ങൾ ഒന്നും ഞാൻ കണ്ടിട്ടില്ല നമ്മുടെ കുടുംബത്തിൽ അങ്ങനെ കണ്ടിട്ടില്ല എന്നാ പുറമേന്ന് പറയുമ്പോൾ ഇപ്പൊൾ നമ്മുടെ അയൽവാസികളായിട്ട് ഇപ്പോ കുറെ എന്താ പറയുക നമ്മുടെ സഹപ്രദേശത്ത് ആദിവാസി വിഭാഗങ്ങളൊക്കെയുണ്ട് അവരുടെ കല എന്ന് പറയുമ്പോൾ അവരുടേതായ ഡാൻസുകള് ചില പാട്ടുകൾ അങ്ങനത്തെയൊക്കെ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട് കാരണം അവര് അവരുടേതായ രീതിയിൽ പാടുകയും ഡാൻസ് നൃത്തങ്ങൾ ഒക്കെ ചെയ്യുന്നതും ഒക്കെ നമ്മള് കണ്ടിട്ടുണ്ട് പിന്നെ കരകൗശല വസ്തുക്കളായിട്ട് എന്ന് പറയുകയാണെങ്കിൽ എന്താ പറയുക ഈ പരമ്പ് പോലെ ഉള്ളവയൊക്കെ നെയ്യുന്നത് ഒക്കെ കണ്ടിട്ടുണ്ട് പരമ്പ് കൊട്ട നെയ്യുക അങ്ങനത്തെയൊക്കെ കാര്യങ്ങളൊക്കെ നമ്മള് കണ്ടിട്ടുണ്ട് പിന്നെ ആദിവാസികൾ ആണെങ്കിൽ അവര് അവരുടേതായ രീതിയിൽ എന്താ പറയുക ഈ അമ്പും വില്ലും അങ്ങനെത്തെ എന്താ പറയുക സാധനങ്ങളൊക്കെ ഉണ്ടാക്കുന്നതൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ട് ഇത്തരത്തിലാണ് കരകൗശല വസ്തുക്കൾ ഒക്കെ അവരുണ്ടാക്കുന്നത് കണ്ടിട്ടുള്ളത് പിന്നെ തുണി എന്നൊക്കെ പറയാണെങ്കിൽ ആദിവാസികളുടെ വസ്ത്രധാരണം എന്നും ഒരു വ്യത്യസ്ത രീതിയിലുള്ളതാണ് എന്താ പറയുക അവരുടെ സ്ത്രീ വിഭാഗത്തിൽ സാരി ഉടുക്കുന്നത് വേറൊരു രീതിയിലാണ് കാരണം നമ്മൾ സാധാരണ കണ്ടുവന്നിട്ടുള്ള സാരി നമ്മുടെ എന്താ പറയുക നമ്മുടെ നമ്മുടെ സമൂഹത്തിലെ സ്ത്രീകൾ കൂടുതലായിട്ടും സാരി ഉടുക്കുന്നത് ഒരു പ്രത്യേക രീതിയിലാണ് പിന്നെ പുരുഷൻമാരാണെങ്കിൽ മുണ്ടും ഷർട്ടുമൊക്കെ ആണ് സാധാരണ കണ്ടു വന്നിട്ടുള്ളത് ഇത്തരത്തിലാണ് കാണാറുള്ളത് പിന്നെ ആദിവാസി വിഭാഗത്തിൽ സാരി ഉടുക്കുന്നത് വേറൊരു രീതിയിലാണ് നമ്മൾ കണ്ടു വന്നിട്ടുള്ളത്